ഹലോ ആ പറഞ്ഞോളൂ

ആ ഓക്കെ പറഞ്ഞോളൂ മാഡം ആ ഓക്കെ ആ മാഡം കോഴിക്കോടേക്ക് വരുകയാണ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നതാണല്ലേ റെന്റിനിപ്പം നമുക്ക് ഹൗസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മേഡം അപ്പോൾ നമുക്ക് ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ഏയ്റ്റീൻ തൗസന്റ് ഒക്കെ അവർക്കു പേ ചെയ്യേണ്ടി വരും പിന്നെ ഒരു ഏയ്റ്റ് തൗസന്റ് ഒക്കെ വെച്ചിട്ട് മാസം റെന്റ് വരാൻ ചാൻസ് ഉണ്ട് കോഴിക്കോട് നിന്നൊരു ടൌണിൽ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് യാത്രയുണ്ടാവും എങ്ങനെ നെക്സ്റ്റ് വീക്ക് ആണോ ആ ഓക്കെ അപ്പോൾ മേഡം നമുക്കപ്പോൾ ആ വീട്ടിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ ഒരു കിച്ചൺ പിന്നൊരു ഡൈനിംങ് ഹാൾ പിന്നെ ഒരു ലി ഇത് ലിവിങ് ലിവിങ് റൂം ഉണ്ട് ആ പിന്നെ ഒരു സിറ്റ് ഔട്ടും ഉണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും ഒരെണ്ണം ഒരു കോമൺ ബാത്റൂമും ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ അതിന്റെ ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ മാഡത്തിന് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം ഈ നമ്പറിലാണോ മാഡത്തിന് വാട്സപ്പ് ഉള്ളത് ഓക്കെ ഞാൻ മാഡത്തിന് വാട്സപ്പ് ചെയ്ത് തരാം എന്നിട്ട് മാഡം വേണമെങ്കിൽ ആ വീട് വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റഡിയിൽ വേറെ വീടുകളുണ്ട് മേഡത്തിന് ഓക്കെയാണെങ്കിൽ

ആ ഓക്കെ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള വീടുകളുടെയൊക്കെ ഫോട്ടോസ് മാഡത്തിന് വാട്സപ്പ് ചെയ്തേക്കാം എന്നിട്ട് മാഡം ഇതിൽനിന്ന് ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റെന്റും കാര്യങ്ങളും ബാക്കി സംസാരിക്കാം

ആ ഓക്കെ മാഡത്തിന് ഏകദേശം ബഡ്ജറ്റോ കാര്യങ്ങളോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ബഡ്ജറ്റ് ഒന്നും പ്രശ്നമൊന്നുമില്ല അല്ലേ ആ ഓക്കെ ആ ഓക്കെ എന്തായാലും മാഡത്തിന് ഞാൻ ഫോട്ടോസ് ഒക്കെ വാട്സപ്പ് ചെയ്തേക്കാം മാഡം അതിനകത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് അയയ്ക്കുവാണെങ്കിൽ ഞാൻ ആ വീടിന്റെ ഡീറ്റെയിൽസ് ബാക്കി ഞാൻ മാഡത്തിന് പറഞ്ഞ് തരാം ആയിക്കോട്ടെ മാഡം